എനിക്ക് ഞങ്ങളുടെ മുതിര്ന്ന മുതിർന്നവരില് നിന്നുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം എന്റെ അമ്മച്ചി ഞാൻ ആദ്യമേ ആദ്യ പണ്ട് കാലം തൊട്ടേ അതായത് അഞ്ചാറ് പശു ഉണ്ടായിരുന്നു പോത്ത് ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു കാട ഉണ്ടായിരുന്നു ആട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ പരിപാലിച്ച ഒരു വ്യക്തിയാണ് എന്റെ അമ്മച്ചി അത് കാരണം ഞാൻ വന്ന് ഞാനും വന്ന് ഇങ്ങനെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോള് എനിക്ക് ഓരോ തരത്തിലുള്ള ഉപദേശങ്ങൾ തരും അവയ്ക്ക് ഇന്ന സമയത്ത് ഇന്ന ആഹാരം കൊടുക്കണം അവയ്ക്ക് ഇന്ന രീതിയില് വെള്ളം കൊടുക്കണം അവയ്ക്ക് എന്നിട്ട് ഓരോ സമയത്ത് കൊടുക്കേണ്ട മരുന്നുകള് ഇന്ന ഇന്ന മരുന്നുകള് അവയ്ക്ക് കൊടുക്കണം അതിനുശേഷം പറയുക അവയ്ക്ക് തൂക്ക അവര്ക്ക് തൂക്കം വരുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ അവരുടെ മൂക്കിൽ കൂടെയൊക്കെ ഈ നമുക്ക് ജലദോഷം വരുന്നത് പോലെയൊക്കെ ജലദോഷങ്ങൾ വരുമ്പോഴും അപ്പോൾ എന്ത് മരുന്ന് കൊടുക്കണം പിന്നെ കാലിലൊക്കെ മുറിവുകളുണ്ടായാലും മഞ്ഞൾ പണ്ട് കാലത്ത് അങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു കാരണം അതൊക്കെ വളരെയധികം പ്രയോജനം എനിക്കെന്റെ മൃഗങ്ങളുടെ സംരക്ഷണത്തില് എനിക്ക് അമ്മച്ചിയില് നിന്ന് കിട്ടാറുണ്ട് കാരണം എന്തൊണ്ടെങ്കിലും അവയ്ക്ക് തൂക്കം വന്നാലോ അല്ലെങ്കിൽ അവയുടെ കാലോ കൈയോ അവിടെയും ഇവിടെയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാന് അമ്മച്ചിയോട് ചോദിക്കും അമ്മേ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അമ്മച്ചി ഉടനെ പറയും മഞ്ഞളും ഉപ്പും കൂടെ ചാലിക്ക് എന്നിട്ട് ആ മുറിവിലോട്ട് വെച്ചിട്ട് ഒരു തുണി വെച്ച് കെട്ട് എന്നിട്ട് പിറ്റേ ദിവസം അത് അഴിച്ചു കള ചിലപ്പോൾ മുയലിനൊക്കെ അങ്ങനെ സംഭവിക്കുമ്പം അങ്ങനെ തേച്ചു കൊടുത്ത് എന്റെ നടക്കാത്ത മുയലൊക്കെ നടന്നു പോയിട്ട് അതിന്റെയൊക്കെ ആ വേദനകളൊക്കെ മാറി അവ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകാരണം ജൈവരീതിയിലുള്ള നമ്മുടെ പണ്ട് കാലത്തുള്ള മരുന്നുകളും പണ്ടുകാലത്തുള്ള തീറ്റകളും പണ്ടുകാലത്ത് ജീവിച്ചിരുന്നവരുടെ ഉപദേശങ്ങളും ഇന്നും നമ്മക്ക് വളര്ത്ത് മൃഗങ്ങളെ പരിപാലിക്കുന്നതില് വളരെയധികം കാര്യഗൗരവം ആയിട്ടുള്ള ഉപദേശങ്ങളും അതിനുള്ള പ്രയോജനങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ട് അത് വളരെയധികം സന്തോഷത്തോടെ പറയുന്നത് പറയുകയാണ് കാരണം ഇന്നും ആ അമ്മച്ചി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യങ്ങളെന്ന് കാണുമ്പോൾ ഉടനെ ഞാന് ചോദിക്കും ഉടനെ അമ്മ അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരും അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്റെ മൃഗങ്ങളെ സംരക്ഷിക്കാനും സാധിക്കുന്നുണ്ട്